ഹൈക്ക് ചെയ്യാൻ എല്ലാവരും ചൂസ് ചെയ്യുന്നതും അതുപോലെതന്നെ ഞാൻ ചൂസ് ചെയ്യുന്നതും മലനിരകൾ തന്നെയാണ് അതുപോലെതന്നെ മഞ്ഞു മൂടിയ പർവ്വത നിരകളിലെനിക്കാകർഷകമായി തോന്നുക അവിടുത്തെ ആ മൂടൽമഞ്ഞും ആ തണുത്ത ആ ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ അവിടെ സൂര്യ പ്രകാശം കാണത്തില്ലല്ലൊ നല്ല ഇരുട്ടുള്ള ഒരു കാലവസ്ഥയാരിക്കില്ലെ അതൊക്കെയാണ് എനിക്ക് അവിടെയിഷ്ടം പിന്നെ ഇടതൂർന്ന വനങ്ങളിലെ മരങ്ങളും പക്ഷിയുടെ ചില ശബ്ദങ്ങളും അതുപോലെതന്നെ ചെറിയ ചെറിയ പ്രാണികൾ ജീവികളും പിന്നുളളത് അവിടുത്തെ മരങ്ങൾ പിന്നെ അതിൽ ക്കൂടെ മരത്തിന്റെ ചില്ലകൾക്കിടയിൽക്കൂടി കാണുന്ന സൂര്യപ്രകാശം അതൊക്കെയാണ് എനിക്ക് അ അതിലിഷ്ടം പിന്നെ പർവ്വത നിരകളിൽ സൂര്യാസ്ഥമയമാണെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ആ ഒരു സ് സസ്യങ്ങളുടെയും അതുപോലെതന്നെ ആ സൂര്യപ്രകാശം ത്തിന്റെ കിരണങ്ങളുടെ ആ ഭംഗിയും അതുപോലെതന്നെ ആ സന്ധ്യാസമയത്തുള്ള ആ ചേ കിളികളുടെ ശബ്ദം അതൊക്കെ എനിക്കു വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്